ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കായിക മേഖല എന്ന് പറയുന്ന ഓരോ സെക്ഷനു വേണ്ടിയിട്ട് ഗ്രൗണ്ടുകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിന്റയിൻ ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ എന്നും വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെയായിട്ട് ആണെങ്കിലും കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോവുകയും അതുപോലെ അക്കാഡമി കാര്യങ്ങളൊക്കെയായിട്ട് ഓരോ കോച്ചിങ്ങ് കാര്യങ്ങൾ കൊടുക്കുകയും അങ്ങനെ ആളുകൾക്ക് അവളുടെ അവരുടേതായ ഇന്ററസ്റ്റ് കാര്യങ്ങൾക്ക് ഒക്കെയായിട്ട് അവർക്ക് പുരോഗമനം കാര്യങ്ങക്കൊക്കെ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ കണ്ട് അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും തന്നെ അങ്ങനെയുണ്ട് ഓരോ അക്കാഡമി കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും ഓരോ കോച്ച് കാര്യങ്ങൾ ഒക്കെയായിട്ട് അവർക്ക് അവർക്കു വേണ്ട ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്